നമ്മുടെ ഗ്രാമ ഞങ്ങളുടെ ഗ്രാമത്തിൽ തുറസ്സായ സ്ഥലങ്ങളിൽ മലമൂത്രവിസർജ്ജനം നേരത്തെ സാധാരണമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഇപ്പോഴും ഗ്രാമങ്ങളിൽ ടോയ്ലറ്റുകളൊക്കെ ഉണ്ടായി ഇത് പൊതു ശൗചാലയങ്ങളുണ്ട് പക്ഷെ നമ്മൾ അധികം വൃത്തിയായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ ഇത് നമ്മുടെ അസുഖങ്ങൾ ശാരീരികമായിട്ട് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ നമ്മുടെ ഗ്രാമത്തിൽ ധാരാളം നേരത്തെയുള്ള സ്ഥലങ്ങളിൽ തുറസ്സായ സ്ഥലങ്ങളായിരുന്നു പരസ്പരം ഈ ശുചിയിടങ്ങൾ ശൗചാലയങ്ങൾ കുറവായിരുന്നു പക്ഷെ ഇപ്പോഴതിനുള്ള സൗകര്യമുണ്ട് വീടുകളിൽ എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള സ്ഥലസൗകര്യങ്ങളുണ്ട് തുറസ്സായ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷം ചെയ്യും പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതു കൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നൽകുന്നതെപ്പോഴും നന്നായിരിക്കും ശരീരം ത്തിലെ അവശിഷ്ടങ്ങൾ മലവും മലത്തിലൂടെയും മൂത്രത്തിലൂടെയും പുറന്തള്ളുന്നതാണ് അത് ഒരിക്കലും നമ്മുടെ വിസർജ്ജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലെ ദോഷ ഭ വസ്തുക്കളാണ് അത് നമ്മൾ തുറസ്സായ സ്ഥലങ്ങളിൽ ചെയ്യുന്നത് എപ്പോഴും ദോഷമാണ് വരുന്നത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള ശീലങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇനിയും നമ്മുടെ തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു അവബോധം നൽകുന്നതെപ്പോഴും നന്നായിരിക്കും നമ്മുടെ കുട്ടികളും കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ഈ ഒരു ശീലം നല്ല ശീലങ്ങളൊക്കെ ആയതു വളർത്തിയെടുക്കുന്നത് നന്നായിരിക്കും അതിനാല് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു ശ്രദ്ധ നൽകുന്നത് എപ്പോഴും നന്നായിരിക്കും ഒരിക്കലും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നമ്മുടെ മോശം കാര്യം എന്നു വെച്ചാൽ പ്രവണതകൾ എപ്പോഴും നമുക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ ഒരിക്കലും അത് അത് തുടർന്നു കൊണ്ട് പോകുന്നത് നമുക്ക് ഭൂഷണമല്ല അതിനാലായിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക ഒരിക്കലും ഈ നമ്മുടെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് നമ്മുടെ വീട്ടിലുള്ള ആൾക്ക് ചെറുപ്പത്തിലെ ശീലിപ്പിക്കുക മുതിർന്നവരൊക്കെ ചിലപ്പോഴിത് ഈ അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു കൃത്യമായിട്ടുള്ളൊരു അച്ചടക്കം ഒരു ചിട്ട ഉണ്ടാകാറില്ല പക്ഷേ അവരെ നമ്മൾ പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക നമ്മൾ സ്വയം ശീലിക്കുക ഇങ്ങനെ എപ്പോഴും നമ്മൾ നന്നായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഇതു വളർത്തിയെടുക്കുന്നത് ഒരു അവബോധം വളർത്തിയെടുക്കുന്നത് നന്നായിരിക്കും ശീലിക്കുക കൃത്യമായിട്ട് സമയത്തിൻ്റെ ഇടവേളകളിൽ ഇവ ചെയ്യുക അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക അതിനായിട്ട് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുക നമ്മളൊരുമിച്ച് ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിലും നമ്മൾ പൊതു ഇപ്പോൾ മീറ്റിങ്ങുകളിലും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഊന്നൽ നൽകുക എപ്പോഴും എല്ലാവരെയും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ഒരിക്കലും ഇതു മറന്നു പോകരുത് അത് പരസ്പരം പറഞ്ഞു പറഞ്ഞു നൽകുക പകർന്നു നൽകുക ഒരു കുടുംബത്തിൽ എപ്പോഴും ഇത് ആവശ്യമാണ് സമൂഹത്തിലും വ്യക്തികൾക്കിടയിലും സമം എല്ലാവർക്കും ഇത് ഉപയോഗ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും അതിനാലായിട്ട് നമ്മൾ പരിശ്രമിക്കണം നമ്മൾ ബൂത്തിൽ നൽകണം നമ്മുടെ ബൂത്തിപ്പോഴും നമ്മുടെ വിരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്കെത്തിക്കും അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം